ഹലോ ഹലോ ചേച്ചി ഞാൻ ചേച്ചിൻ്റെ ഒരു ഫേൻ ആണ് അപ്പോൾ കുറേ നാളായി ഒരു പരിചയക്കാരനോട് ഞാൻ നമ്പർ ചോദിച്ചു വച്ച് വിളിച്ചതാണ് ഇപ്പോൾ ചേച്ചിക്ക് ചേച്ചിൻ്റെ സിനിമയൊക്കെ കാണാറുണ്ട് ചേച്ചിനെ കിട്ടിയ ഇതിൽ എനിക്ക് എന്താണ് വാക്കുകൾ ഒന്നും വരുന്നില്ല ചേച്ചിൻ്റെ ചേച്ചിക്ക് സുഖമല്ലേ എന്താണ് ഇപ്പോൾ എന്താണ് സിൻമ എന്തെങ്കിലും പുതിയതുണ്ടോ ചേച്ചി ചേച്ചി ചേച്ചിനെ കാണാൻ വലിയ ആഗ്രഹമുണ്ട് ഞാൻ ഇവിടെ ഒരു ഷോപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ സ്ഥലം മലപ്പുറം ജില്ലയിൽ വണ്ടൂർ എന്ന സ്ഥലത്താണ് അപ്പോൾ ചേച്ചി ഇവിടെ എവിടേലും വരികയാണെങ്കിൽ എനിക്ക് ഒന്നു കാണാൻ നല്ല ആഗ്രഹമുണ്ട് ആ ഓക്കേ

വാക്കുകളൊന്നും കിട്ടുന്നില്ല ചേച്ചി സന്തോഷം കൊണ്ട് ഞാൻ ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണ് തുണി കടയിൽ വീട്ടിൽ രണ്ട് മക്കളും ഭർത്താവും ഉണ്ട് അച്ഛനും പിന്നെ അമ്മയൊക്കെ ഉണ്ട് സുഖായിട്ട് ഇരിക്കുന്നു ആ ശരി ചേച്ചി ശമ്പളം ഒക്കെ കുറവാണ് പതിനൊന്ന് ആ വീട്ടുകാര്യയങ്ങൾ ഒക്കെ അങ്ങനെ പോകുന്നു ആ മക്കളൊക്കെ ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ട്

ഇയ്യോ അങ്ങനെ ചോയിച്ചപ്പോ ഇപ്പോ ഞാൻ എന്താ പറയാ ആ ശരി